എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അത് ഞാന് സ്വന്തമായിട്ട് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഷുറൻസാണ് എനിക്കുള്ളത് അത് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഡയറക്റ്റെടുക്കുന്ന ഇൻഷുറൻസുകളല്ല ഇപ്പം ഞാൻ യുസെയ്തോണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കമ്പനി ഞാൻ വർക്കെയ്യുന്ന കമ്പനി നമ്മുടെ ഫാമിലി ഇൻക്ലൂഡ് ഞാൻ എംപ്ലോയിക്കും ആ എംപ്ലോയുടെ ഫാമിലി മെമ്പേർസ് ഒരു അച്ഛൻ അമ്മ അടക്കം നം ഇൻഷുറൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ പേരെന്റ്സിന് കൂടെ അടക്കമുള്ള ഇൻഷുറൻസാണ് പ്രൊവൈഡ് യ്യുന്ന നമ്മുടെ ഫാമിലിയിലുള്ള ഹസ്ബൻഡ് വൈഫ് അതുപോലെ നമ്മുടെ കുട്ടികൾ പിന്നെ നമ്മുടെ അച്ഛൻ അമ്മ ഇത്രയും പേരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഇൻഷുറൻസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അപ്പം ആ ഇൻഷുറൻസാണ് ഞാനത് ഉപയോഗിക്കുന്നത് അത് ഞാനൊന്ന് ഒരു തവണ ന നമുക്ക് ഒരു ആവശ്യം വന്നപത്തേക്കിനു കുഞ്ഞിൻ്റെ ഒരാവശ്യം വന്നപ്പത്തേക്കും ഞാനത് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുമുണ്ട് എനിക്കത് വളരെ പ്രയോജനകരമായിട്ടാണ് തോന്നിയത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു ഇൻഷുറൻസ് എൽ പരിരക്ഷ എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ കമ്പനി ഇൻഷുറൻസ് ഇല്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വന്തം നിലയിൽ തന്നെ അത് എടുക്കുമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്